ഹലോ ഇത് പാൻ കാർഡ് സപ്പോർട്ട് ടീമല്ലേ അപ്പോൾ ഞാൻ വിളിച്ചത് പാൻകാർഡിൽ എൻ്റെ നിയമപരമായിട്ട് എൻ്റെ പേരും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മാറ്റണമായിരുന്നു അപ്പം അതിനെത്തുടർന്ന് എൻ്റെ പാൻകാർഡിൽ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യേവേണം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചേക്കുന്നത് അപ്പം അതിനുവേണ്ട ഡീറ്റൈൽസ് അല്ലേ രേഖകൾ എന്തൊക്കെയാണെന്നൊന്നു പറയാമോ ഞാൻ ആധാർ കാഡ് റേഷ കാഡ് പിന്നെ വോട്ടേസ് ഐ ഡി അങ്ങനെ കുറച്ചുകാര്യങ്ങളൊക്കെ ഫിംഗർ പ്രിൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻവേണ്ടി അപ്പോൾ വേറെ എന്തൊക്കെ രേഖകളാണ് വേണ്ടേന്നൊന്ന് പറയാവോ പിന്നെ അത് നമുക്ക് പെട്ടന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടത്തില്ലേ അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളോ താമസങ്ങളോ ഒന്നും ഇല്ലല്ലോ ഡയറക്റ്റ് വന്നാപ്പോരേ പിന്നതിൻ്റെ രേഖകളേതൊക്കെയാണ് വേണ്ടേന്ന് ഒന്ന് കറക്റ്റായിട്ട് പറയണം അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അപ്പം വേറെന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒന്ന് പറയണായിരുന്നു പിന്നെ നിങ്ങളുടെ ടീമിനെ ടീമിലെ അംഗങ്ങളെ ആരേലും നേരിട്ട് വന്ന് ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നു തന്നെ മാറ്റിക്കിട്ടൂലോ വേറെ വേറൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഈ പേര് മാറ്റേണ്ട ആൾ തന്നെ വരണം എന്ന് ഉണ്ടല്ലോ അതോ വേറെ വീട്ടിലെ ആരെങ്കിലും ഈ ഡീറ്റൈൽസൊക്കെ ആയിട്ട് വന്നാൽ മതിയോ നമുക്ക് അതിനെ കുറിച്ച് പറ്റി ഒക്കെ ഒന്ന് പറയാവോ വേറേ വേറെ ചെയ്ൻജസൊന്നും വരുന്ന ആ പാൻ കാർഡിൽ ഇപ്പം ഞാൻ പേരാണ് അപ്ഡേറ്റ് ചെയ്യുന്നെങ്കിൽ ആ പേരിൽ മാത്രം ചെയ്ൻജെസ് വരുത്തിയാൽ പോരെ വേറെ ഡീറ്റൈൽസ് ചേഞ്ച് വരുത്തിയതുമാത്രം അല്ലാണ്ട് വേറെ കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ